ഏറ്റവും അഭിമാനം തോന്നുന്ന നേട്ടം എന്നു പറയുമ്പോൾ പേരൻ്റ്സാണ് കാരണം എന്റെ പേരൻ്റ്സിനെ പോലുള്ള പേരൻ്റ്സിനെ കിട്ടിയത് വളരെ അധികം നല്ല രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് കേട്ടോ കാരണം എല്ലാവരും ഒരുപോലെയാവണം എന്നില്ല എല്ലാവരും നമ്മുടെ ഈ ഒരു ജനറേഷനോട് മിങ്കിളായിട്ട് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാവണം എന്നില്ല പക്ഷേ എന്റെ ഫ്രണ്ട്സിനെക്കാളുപരി എന്റെ നേട്ടം അല്ലെങ്കിൽ എന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെൻ്റ് എന്നു പറയുന്നത് എന്റെ പേരൻ്റ്സാണ് എന്റെ രക്ഷിതാക്കൾ വളരെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്റെ രക്ഷിതാക്കളാണ് എനിക്ക് ഞാൻ കണ്ടെടുത്തോളം അച്ചീവ്മെന്റായിട്ട് എനിക്ക് നേട്ടമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ സംഭവത്തിനും നല്ല രീതിയിൽ വളരെയധികം അച്ചീവ്മെൻ്റ് തരുന്ന ഒരാളാണ് അല്ലെങ്കിൽ രണ്ടാളുകളാണ് എന്റെ പേരൻ്റ്സെന്നു പറയുന്നത് ഇതുവരെത്തന്നെ എന്നെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു മാറ്റിനിർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിനിപ്പം അവർക്ക് എന്താ പറയുക മിങ്കിളാവാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കിത്തരും അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല അതില്ലെങ്കിൽ നീ ചെയ്താൽ ശരിയാവില്ല അല്ലാതെ എന്നെ ഒഴിവാക്കി വിട്ടിട്ടില്ല